രാവിലയും വൈകുന്നേരവും ഓടുന്നുണ്ടോ എന്നു ചോദിച്ചാല് ഓടുന്നുണ്ട് എത്ര സമയം ഓടുന്നെന്ന് ചോദിച്ചാൽ ഒരു രാവിലെ ഒരു മുപ്പത് മിനിറ്റ് വൈകീട്ടൊരു മുപ്പത് മിനിറ്റ് ഓടുന്നത് നാം ദിവസം ഓടാന് പ്രേരിപ്പിക്കുന്നതെന്തെന്നു വെച്ചാൽ നമ്മുടെ ബോഡി ഹെല്ത്തിയാകാന് അതേപോലത്തന്നെ വണ്ണം വണ്ണം അത് വണ്ണം കുറയാൻ നമുക്ക് ഹെല്ത്ത് നമ്മൾ ബോഡി ഹെല്ത്തിയായിട്ടിരിക്കാന് നമുക്കുള്ള നമുക്ക് ഒരു അസുഖത്തിലും ചെന്ന് പെടാതെ നമ്മൾ ആരോഗ്യമായിട്ടിരിക്കാനാണ് നമ്മള് ദിവസവും ഓടുന്നത് എന്നും ഓടുന്നുണ്ട് ഓടുന്നത് നല്ലതാണ് എല്ലാവരും ഓടുമെങ്കിൽ നമ്മുടെ ആരോഗ്യം ഒക്കെ നല്ലപോലെ നിലനില്ക്കും നമ്മൾക്ക് നല്ലപോലെ ആകാം എല്ലാവരും ഓടുക ഓടുന്നത് നല്ലതാണ് ദിവസവും അര മണിക്കൂറ് വെച്ചെങ്കിലും ഓടണം നല്ലതാണ് എന്നും ഓടുന്നുണ്ട് ഓടാന് എന്നും ഓടാനെന്നെ പ്രേരിപ്പിക്കുന്ന മുഖ്യ പ്രധാനപ്പെട്ട കാരണം എന്തെന്ന് വെച്ചാല് എന്റെ ആരോഗ്യം എനിക്ക് നല്ല ആരോഗ്യമായിട്ടിരിക്കണം അതേപോലെതന്നെ വണ്ണം കുറയണം ഒരസുഖവും പെടാതെ കൊളസ്ട്രോളോ അങ്ങനെത്തെ അസുഖങ്ങളിലൊന്നും പെടാതിരിക്കാന് ദിവസവും ഓടുന്നത് നല്ലതാണ് അങ്ങനെ ഒരിച്ചിരി എക്സര്സൈസിന് വേണ്ടി ഞാന് ദിവസവും ഓടും എന്റെ ആരോഗ്യം ഒക്കെ നല്ലപോലെയാകാനും നല്ലപോലെ ഇരിക്കാനും ദിവസവും ഓടുന്നുണ്ട് ദിവസവും ഒരു അരമുക്കാൽ മണിക്കൂർ വെച്ച് രാവിലേയും വൈകുന്നേരവും ഓടുന്നത് അതേപോലെത്തന്നെ നല്ലതാണോടുന്നത് ദിവസവും ഓടുന്നുണ്ട് ഇച്ചിരി വണ്ണം കുറയ്ക്കാനും അതേപോലെത്തന്നെ നമ്മുടെ ആരോഗ്യം ഒക്കെ നല്ലപോലെയാകാനും ഒക്കെയാണ് ഓടുന്നത്